ഹലോ വിനുവേട്ടനല്ലേ ഞാൻ നിങ്ങളെ നേരത്തെ വിളിച്ചിന്നിന് ഞാൻ അന്സി അറിയുമോ നിങ്ങളുടെ ഒട്ടോയിൽ കയറിയിട്ടില്ലേനോ നേരത്തോ ഞാൻ തലശ്ശേരി പോകാനായിട്ട് വന്നിട്ടില്ലേനോ പെട്ടെന്ന് ഓടി വന്നതേനു എന്റെ ബാഗ് ഓട്ടോയിൽ വെച്ച് മറന്നു പോയിട്ടുണ്ട് ആശുപത്രി വന്ന നേരം ഞാൻ പെട്ടെന്ന് ഓടി ഇറങ്ങിയില്ലേ അന്നേരം ഓർമ്മ വന്നത് ഒന്ന് തിരക്കിന്റെ ഇടക്ക് ഓടി പോയതേനു ഒന്ന് മറന്നു പോയതാണ് ഒന്ന് എനിക്ക് കൊണ്ട് തെരണ്ടോ ഞാൻ ഇവിടെ എത്തിയേരാ നോക്കിയത് ആശുപത്രി തന്നെ എത്തിയേരാ നോക്കിയത് അതിന് എനക്കാനെ വേണ്ടപ്പെട്ട കുറേ സാധനമുണ്ട് പൈസയും പൊന്നുമെല്ലാമായിട്ട് കുറേ ഉണ്ടേനു ഒന്ന് വേഗം ഒന്ന് എനിക്ക് കൊണ്ട് തരെ നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ പൈസയും ഞാന് തരാം അത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട അത് ഞാന് കൊണ്ടുത്തരാം നിങ്ങൾ ഇവിടെ വന്നാൽ ആ സപോട്ടിൽ തന്നെ ഞാൻ തരാം നിങ്ങൾ എത്രയും പെട്ടെന്ന് എനിക്ക് ഒന്ന് കൊണ്ടുത്തരുമോ അത്യാവശ്യം ആയതുകൊണ്ടാണ് ഹോസ്പിറ്റൽ വന്നിട്ട് നോക്കുമ്പോൾ പൈസ അടയ്ക്കാൻ ഒന്നും എന്റെ കൈയ്യിന് മേൽ ഇല്ല അന്നേരം എനിക്ക് ബാഗിന്റെ ഓര്മ്മ വന്നത് ഒന്ന് തിരിച്ചു കൊണ്ടുത്തരുമെങ്കിൽ വലിയ ഉപകാരമായിനു അത്രയ്ക്ക് അത്യവശ്യം ആയതുകൊണ്ടാണ് ഒന്ന് ഇങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞാൽ അതിന് എത്രയാണ് പൈസ വരികയെന്ന് വെച്ചാൽ ഞാന് തരാം അത് എത്ര കൂടുതലായാലും കുഴപ്പം ഇല്ല നിങ്ങളൊന്ന് കൊണ്ടുത്തന്നാൽ മതി എവിടെയാണെങ്കിലും ഞാൻ ഇപ്പോൾ തലശ്ശേരിയിൽ റോഡ് സൈഡിൻ്റെ അടുത്താണ് ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ ഉണ്ട് നിങ്ങളൊന്ന് വേഗം വരുമോ വളരെ ഉപകാരായിനു വന്ന് കഴിഞ്ഞാൽ